നിങ്ങൾക്ക് ഇപ്പോൾ എൽ പി ജി കണക്ഷനുണ്ടോ ഏത് ഇണ്ടെങ്കിൽ അത് എങ്കിൽ നേരത്തെ വിറക് ഉപയോയിച്ച് വ്യത്യസ്ഥമായ ഇപ്പോഴുള്ള അനുഭവം എങ്ങനെയാണ് അങ്ങനെ ചോദിച്ച് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം തന്നെയാണ് കാരണം ഇപ്പം ഗ്യാസായതോണ്ട് വിറകിന് പോണ്ട കാര്യം ഇല്ല വിറക് വെട്ടണ്ട കാര്യം ഇല്ല അങ്ങനെ കുറെ സംഭവങ്ങളാണ് നമ്മൾ ഇപ്പോൾ ചെയ്ത് വരുന്നത് അപ്പോൾ ഗ്യാസുള്ളപ്പോൾ നല്ല നല്ല നല്ല ഒരിതാണ് ഇത് ഇപ്പം എഴുപത് സെക്കൻറ്റ് സംസാരിക്കെണ്ടി വരുമോ നമ്മൾ അല്ലെങ്കിൽ മുപ്പത് സംസാരിക്കെണ്ടി വരുമോ എത്ര വേണം എഴുപത് തന്നെ സംസാരിക്കണം അല്ലേ അപ്പം അങ്ങനെ നോക്കുവാണെ നമ്മൾ ഗ്യാസായിരിക്കും കുറച്ചും കൂടി ബെറ്ററ് ഗ്യാസാവ്മ്പോൾ മാസം മാസം പൈസ കൊടുത്താലും ഇപ്പത്തെ കാലത്ത്ന്ന് വെച്ചാൽ വല്ലവൻ്റെ പറമ്പ് പോയി വിറക് വെട്ടി കഴിഞ്ഞാൽ അവൻ തന്തയ്ക്ക് വിളിക്കും അത്കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ പൈസ കൊടുത്ത് തന്നെ വിറക് വെട്ടാ പറ്റൂള്ളൂ അത്കൊണ്ട് നമ്മൾ ഇപ്പം ചുമ്മാ അമ്മമാരൊക്കെ സിമ്പിളായി ചെയ്യേണ്ട കാര്യമാണ് ഗ്യാസ് ഗ്യാസാവ്മ്പള് നമുക്ക് എവിടെ വേണേ കൊണ്ടോവാ വെറകട്പ്പാവ്മ്പൊ അകം ഒക്കെ കരിഞ്ഞിരിക്കും പക്ഷേ നമ്മൾക്ക് ഗ്യാസാകുമ്പോൾ ഗ്യാസ് മാത്രം ഉള്ളൂ പൊട്ടിത്തെറിച്ച് മരിക്കുക മാത്ര ഉള്ളൂ അല്ലാണ്ട് വിറക് അടുപ്പ് പോലെ കത്തൂല അങ്ങനെ നമ്മൾ ഗ്യാസൊക്ക ബുക്ക് ചെയ്യുന്ന സമയത്ത് ആണെങ്കിൽ കുറെ പൈസ കൊടുക്കണം പക്ഷേ എണ്ണൂറ് റുപ്യായോ എത്ര ആയിരം റുപ്യെങ്ങാട്ട് കൊട്ക്കണ്ടയ്ള്ളു ഒരു മാസത്തെ വിറക് വാങ്ങണ്ട പൈശെന്ന്യാ അതിനുള്ളൂ അപ്പം നമുക്ക് അതായി കുറച്ചൂട് ബെറ്റർ അങ്ങനെ നോക്കുവാണെങ്കിൽ വിറക് വെട്ടെണ്ട കാര്യം ഇല്ല ഗ്യാസാണേ ചുമ്മാ അടുപ്പിൻ്റെ തറേൻ്റടീൽ കൊണ്ടോയ് വെച്ചാൽ മതി ബാക്കി പിന്നെ കത്തിച്ചാൽ മതി അങ്ങനെക്കാണ് നമ്മൾ അങ്ങനെ ഉദ്ദേശിക്കുന്നത്